ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു വാച്ച് ഓർഡർ ചെയ്തതായിരുന്നു അത് ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ബികോസ് അത് നല്ല പ്രോഡക്റ്റ് ആയിരുന്നു വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷത്തിലേറെ ആയി എങ്കിലും ഇപ്പോഴും അത് നല്ല ഒരു കേടുപാടും കൂടാതെ നല്ലതായിട്ട് ഇരുപ്പുണ്ട് അത് ഞാൻ ഹാപ്പി വിത്ത് ദിസ് പ്രോഡക്ട്